സ്വിഗ്ഗി അല്ലേ ആ ഞാൻ കുറച്ചു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്നേ നേരത്തെ കുറച്ചു മുന്നേ ആ അപ്പം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പിന്നെ ക്വാളിറ്റി ഒക്കെ വളരെ കുറവാണ് ആദ്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പം വലിയ കുഴപ്പം കാര്യങ്ങൾ ഒന്നും തോന്നിയില്ല അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതായത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പിന്നെയും ഓർഡർ ചെയ്തത് അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇത് കൊണ്ടുതന്ന അതായത് ഒന്നിനും ടേസ്റ്റ് ടേസ്റ്റ് പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പഴയ ടേസ്റ്റ് മാത്രമല്ല പിന്നെ ഈ ഇതൊക്കെ അതായത് കറികളൊക്കെ പകുതിയും ആ ഒരു ബോക്സിൽ തന്നെ മറിഞ്ഞിരിക്കുക അപ്പം നിങ്ങൾ അതായത് ഇത്ര ദൂരത്തേക്ക് അഞ്ച് കിലോ മീറ്റർ ആണെങ്കിൽ അത്ര ദൂരം നിങ്ങൾക്ക് സൂക്ഷിച്ച് അത് കൊണ്ടുവരാനുള്ള ഡെലിവറി ബോയ്സ് കാര്യങ്ങൾ ഒന്നുമില്ലേ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ എന്തായാലും പൈസ കൊടുത്തിട്ടില്ലേ നമ്മൾ മേടിക്കുന്നത് വെറുതെ തരുന്നത് അല്ലല്ലോ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് റിട്ടേൺ എടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തന്നേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഈ ഫുഡ് വേണ്ട ആ അത് ഓക്കെ